ഹലോ ഹലോ ആകാശാണോ ആകാശാണോ ആ ഞങ്ങൾക്ക് ഒരു ഇരുപതാം തീയ്യതി ആവുമ്പോൾ ഞങ്ങൾക്ക് പുൽപള്ളിയിലേക്കുള്ളൊരു ടൂർ ഫുഡ് പാക്കേജ് വേണമായിരുന്നു ആ അതെയതെ

ആണല്ലേ ആ നമ്മൾ മൊത്തത്തിലൊരു പത്തിരുപത് പേരുണ്ട് ആ അപ്പോൾ അവിടെ ആ റിസോർട്ട് വേണം താമസം എല്ലാ സൌകര്യവും വേണം ആ എല്ലായിതും മൊത്തത്തിൽ ഒരു പാക്കേജ് പോലെ ആ അല്ല നമുക്ക് വന്നുകഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടിയാണ് കാണാൻ പറ്റുന്നത് ആ ആ ആ ആണല്ലേ ആ ആ ഓക്കെ ഓക്കെ അതെയതെ ആ നമുക്ക് എങ്ങനെയെങ്കിലുമൊരു പത്തു ദിവസത്തിനു മുകളിൽ നമുക്ക് ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ആ ആ ആ ഓക്കെ പിന്നെ നമ്മൾക്കിന്ന് ടെൻ്റടിക്കാനുള്ള സൌകര്യമൊക്കെ ഉണ്ടാവില്ലെ ആ ഓക്കെ ഈ പാക്കേജിൽ എത്ര ക്യാഷ് വരും എല്ലാം കഴിഞ്ഞല്ലേ ഓക്കേ വിത്ത് ഫുഡ് ആ ആ കൂടെ നമുക്ക് ആളുണ്ടാവില്ലേ ഗൈഡായിട്ട് ആ ആ ഈ പത്തു ദിവസം നമ്മുടെ കൂടെത്തന്നെ ആളുണ്ടാവില്ലേ ആ നമ്മൾക്ക് ഡ്രൈവിങ്ങിന് ആ വേണോ എന്തെങ്കിലും എക്സ്ട്രാ വയ്ക്കേണ്ടി വരും ആ ആ നമ്മൾക്ക് ഇപ്പം നമുക്ക് അടുത്ത മാസത്തേക്കൊരു പത്തിനുള്ളിൽ വെക്കാം

എന്നാൽ ആ ഓക്കെ ഓക്കെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ നമ്പറില് വാട്സ്ആപ്പ് നമ്പറല്ലേ ഇത് ആ ആയിക്കോട്ടെ ഒന്നിച്ച് ചെയ്തിട്ട് ആ ഓക്കെ